കർഷകർ ആത്മഹത്യയെന്ന് എന്നുവെച്ചാൽ കർഷകർ അവരുടെ അതൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണവർ ഓരോ കൃഷികളും എറപ്പ് കൃഷിയിടങ്ങളിൽ ഇറക്കുന്നത് അത് കാട്ടുമൃഗങ്ങളായിട്ടും വന്യമൃഗങ്ങളായിട്ടും എല്ലാം നശിപ്പിക്കുന്ന ഒരു പതിവാണ് എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും അത് കണ്ടുവരുന്നുണ്ട് നമ്മൾ വാർത്തയിൽ വാർത്താച്ചാനലിൽ കൂടിയൊക്കെയത് കേൾക്കുന്നതും കാണുന്നതൊക്കെയാണ് പിന്നെ അവർക്ക് അവരുടേതായ അദ്ധ്വാനത്തിൻ്റെ ഫലമായി ഉണ്ടാക്കുന്ന അവരുടെ ആദായങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു വില അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു അവരുടെയൊരു പരാതിയാണ് അതൊക്കെ അതിനൊക്കെവേണ്ടി ഗവൺമെൻ്റ് കുറച്ച് ഒരു ഇതാ എന്ത് എന്തെങ്കിലുമൊക്കെ അവർക്കുവേണ്ടി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവരുടെ ആത്മഹത്യയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ എന്നായിരിക്കും എൻ്റെയൊരു ചിന്ത